എനിക്ക് പുസ്തക പരമ്പരയായിട്ടൊന്നും പറയാനായിട്ടില്ല എന്നാൽത്തന്നെയും ഞാന് ഏറ്റവും കൂടുതൽ പ്രാവിശ്യം വായിച്ചിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള് ഞങ്ങളുടെ അപ്പോൾ അതിൽ ഞാന് പുതിയ നിയമവും ലേഖനങ്ങളും ഞാനൊരുപാട് തവണ വായിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും പുതിയ നിയമം നമ്മൾ ദൈവ തിരുവചനങ്ങളാണ് അതുകൊണ്ടുതന്നെ ഞങ്ങളത് കൂടുതൽ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനത് ദിവസവും വായിക്കാറുണ്ട് അത് ബൈബിളിന്റെ എല്ലാ ദിവസവും ഞാന് ഒരദ്ധ്യായമെങ്കിലും വായിക്കും അത് കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടമാണ് പിന്നെ ലേഖനങ്ങളും പഴയ നിയമത്തിലെ കൂടുതൽ ഞാനങ്ങനെ ഞാന് വായിച്ചിട്ടുണ്ട് ഇപ്പം ബൈബിള് പൂര്ണ്ണമായിട്ടും സമ്പൂര്ണ്ണമായിട്ടും വായിച്ചിട്ടുണ്ട് എന്നാലും പഴയ നിയമം ആണ് പഴയ നിയമത്തിലെ കുറച്ച് ഭാഗങ്ങളും കൂടുതല് എനിക്കിഷ്ടമുള്ളത് പുതിയ നിയമവും ലേഖനങ്ങളുമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാന് കൂടുതലായിട്ട് എനിക്കത് ഇഷ്ടമാണ് ഞാന് വായിച്ച് കൂടുതല് പ്രാവിശ്യം വായിക്കുന്നുണ്ട് ഇനിയും അത് തുടര്ന്ന് വായിക്കാനാട്ട് എനിക്ക് താല്പ്പര്യമുണ്ട് ഫുള്ള് സമ്പൂര്ണ്ണം ബൈബിളും ഞാൻ ഏകദേശം മൂന്ന് പ്രാവിശ്യം പൂര്ണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് മറ്റു പുസ്തകങ്ങളും വായിക്കാറുണ്ട് എന്നാലും നോവല് കഥ നോവലുകളും മറ്റു കാര്യങ്ങളുമൊന്നും ഞാന് എനിക്ക് വായിക്കാന് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് കൂടുതലായിട്ട് വായിക്കുന്നില്ല പക്ഷെ ബൈബിള് വായിക്കാന് എനിക്ക് കൂടുതൽ വൈകിയിട്ട് ഞാനെല്ലാ ദിവസവും വൈകിയിട്ട് വായിക്കും അത് പ്രാര്ത്ഥനയുടെ ഒരു അരൂപിയിലാണത് വായിക്കുക അത് എനിക്ക് പ്രയോജനമുണ്ട് നല്ല നല്ല ആശയം മനസ്സിനെ നല്ല നല്ല ആശയങ്ങൾ കിട്ടുന്നുണ്ട് ദൈവത്തിന്റെ തിരുവചനങ്ങൾ കേള്ക്കുമ്പം അതനുസരിച്ച് ജീവിതമാര്ഗ്ഗങ്ങള് ജീവിതത്തെ ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങള്ക്കും എല്ലാം നമുക്ക് മറ്റുള്ളവരോടുള്ള ഇടപെടളുകളും മറ്റു കാര്യങ്ങള്ക്കും എല്ലാം അതിന്റെ എനിക്ക് പ്രചോദമുണ്ട് പിന്നെ വിശുദ്ധ ഗ്രന്ഥ വായനയെന്ന് പറയുന്നതൊരു ഞാനൊരു സ്ഥിരചര്യയാണ് എനിക്ക് ഞാന് എല്ലാ ദിവസവും വായിക്കാനുള്ള ഒരു നിഷ്ഠയുണ്ട് അത് ഞങ്ങളങ്ങനെ എന്റെ കുടുംബത്തിലും ഞാനത് വായിക്കുന്നു ഉള്ളവരും എല്ലാവരും വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതൊരു സ്ഥിരമായിട്ട് വായിക്കുന്നു അത് പിന്നെ സമ്പൂര്ണ്ണ ബൈബിള് ഞാൻ ഒരു മൂന്ന് പ്രാവിശ്യം പൂര്ണ്ണമായിട്ട് വായിച്ച് തീര്ത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഈ പുതിയനിയമം കൂടുതലായിട്ട് വായിക്കുന്നുണ്ട് എന്നും എവിടെയെങ്കിലും യാത്ര പോവുന്നതിൻ്റെ ഒക്കെ മുമ്പിട്ട് ഞാന് രണ്ട് വാക്കെങ്കിലും ബൈബിളിനെപ്പറ്റി ബൈബിളെടുത്ത് വായിച്ചിട്ട് ആ പോകുന്നത് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലായാലെന്തെങ്കിലും വിശിഷ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിലായാലും മറ്റു സമൂഹം നമ്മുടെ പിന്നെ പള്ളിയോടനുബന്ധിച്ചുള്ള സംഘടനകളിലായാലും ഒക്കെ കൂടുതല് പ്രവര്ത്തിക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലായിട്ട് ബൈബിളിനെപ്പറ്റി അറിയാനും ബൈബിളിന്റെ ആ വായിച്ച് അതിന്റെ ആ പ്രചോദനം ഉള്ക്കൊള്ളാനുമൊക്കെ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ഉള്ള കാരണം അതുകൊണ്ട് കൂടുതല് തവണ വായിക്കാനും ഒരു താല്പ്പര്യമുണ്ട് ഇപ്പം എന്റെ മൂന്ന് തവണ പൂര്ണ്ണമായിട്ട് വായിച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ ഡെയ്ലി ബൈ ഓരോ അദ്ധ്യായം വീതം വായിച്ചുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ റൊട്ടേഷന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെയാണ് ഞാനീ ഇപ്പം യാത്ര പരിപാടികളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയുള്ള ഈ തിരുവചനങ്ങൾ ഒന്നും രണ്ടും വചനങ്ങൾ വായിക്കുകയും അതനുസരിച്ച് അത് വായിച്ചിട്ട് യാത്ര പോവുന്നതിനു മുമ്പിട്ട് വായിക്കും അതുപോലെ രാവിലെ പിന്നെ ദേവാലയങ്ങളിലൊക്കെ ഇത് കേൾക്കുന്നുമൊക്കെയുണ്ട് അപ്പം അത് നമുക്കതിനെപ്പറ്റി ഇങ്ങനെ വൈദികരൊക്കെ ഓരോരുത്തർ ഇതിനെപ്പറ്റി വിശദീകരിച്ചൊക്കെ തരുമ്പോഴത്തേക്ക് അതിന്റെ അര്ത്ഥത്തെ പറ്റിയും അതിന്റെ വ്യാപ്തിയെ പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാന് പറ്റും അത് വീണ്ടും നമ്മൾ വന്ന് വീട്ടിൽ വന്ന് വായിക്കുമ്പോഴത്തേക്കത് നമ്മുടെ മനസ്സിന് നല്ലതുപോലെയത് ദുരഹം ഗ്രഹിക്കാന് കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇത് കൂടുതലും പ്രിയപ്പെട്ടതാണ് എന്നും അത് സ്ഥിരമായിട്ട് വായിക്കുന്നു അതുകൊണ്ട് വായിച്ചതുകൊണ്ട് നല്ല മനസ്സിന് പ്രത്യേക പ്രവര്ത്തനങ്ങള്ക്ക് പ്രത്യേക ഊര്ജ്ജം കിട്ടുന്നുണ്ട് അതനുസരിച്ച് നമ്മൾക്ക് നല്ലതെന്ന് നമ്മുടെ ജീവിതമാര്ഗ്ഗം ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ പറ്റുന്നുണ്ട് നല്ല കൂടുതൽ താല്പര്യപൂര്വ്വം ആളുകളോട് ബന്ധപ്പെടാനും പിന്നെ സഹ സഹകരിക്കാനും സഹായിക്കാനുമൊക്കെയുള്ളൊരു പ്രചോദനം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണതിനെപ്പറ്റി അതുകൊണ്ടാണ് ബൈബിളിനെപ്പറ്റി കൂടുതലിഷ്ടപ്പെടാന് കാരണം അത് തന്നെ നിരന്തരമായിട്ടത് വായിക്കാനുള്ള കാരണവും പിന്നെ നമ്മൾക്ക് അതിനുള്ള പ്രചോദനം നമ്മുടെ സഭാതലത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ തരുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളുമൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ട് അപ്പം അതനുസരിച്ച് അത് പൂര്ണ്ണമായിട്ടും അത് അതിനനുസരിച്ച് വായിക്കാനും അത് അതിന്റെ അനുസരിച്ചുള്ള കാര്യങ്ങളിൽ നിൽക്കാനും അതൊരു പുണ്യമാണ് അല്ലെങ്കിലതൊരു ബൈബിള് വായിക്കുന്നത് നല്ല ഒരനുഭവമാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അത് നമ്മൾക്ക് ഉണ്ട് അപ്പം അതനുസരിച്ചാണ് ബൈബിളിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് പുസ്തകമെന്ന് പറഞ്ഞാൽ അത് നമ്മടെയൊരു ആശയമാണ് നമ്മുടെ ഒരു നല്ല ഒരു ജീവിതത്തെ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പ്രചോദനമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ നമ്മുടെ വായിക്കാന് ഇനിയും ഇഷ്ടമാണ് ഇനിയും നമ്മൾക്ക് കഴിയുന്നിടത്തോളം വായിക്കാനുള്ളെന്നുള്ള ആഗ്രഹമുണ്ട് അതനുസരിച്ച്